വ്യവസായ സംഘാടകർ വളരെയധികം വികസിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണിപ്പം ഇന്ത്യയിലുള്ളത് കാരണം ഇപ്പൊൾ ഇന്ത്യയില് കൂടുതലായിട്ടും ഈ കൃഷി ചെയ്യുന്നവരാണുള്ളത് ഇഞ്ചി കൃഷി കുരുമുളക് കാപ്പി അതുപോലത്തന്നെ കപ്പ അങ്ങനെ ഒരുപാട് കൃഷി ഒരുപാട് ഐ ഐറ്റങ്ങള് ഇപ്പൊൾ കൃഷി ചെയ്യുന്നുണ്ട് ഇന്ത്യയില് ഇതിനൊക്കെ നല്ല മെച്ചോണ്ട് അതായത് ഇഞ്ചിക്കൃഷിക്കൊക്കെ ഇപ്പം നല്ല ഒരു റേറ്റിംഗുണ്ട് അപ്പോൾ ഇങ്ങനെ ഇവര് എന്താ ചെയ്യുന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കില് കൂടുതലായിട്ടും റേറ്റ് കൂടുമ്പോൾ അവര് വില്ക്കുന്നു ഇപ്പം പൈസയൊന്നും അധികം ഇല്ലാത്ത ഒരു ടൈമിലാണെങ്കിൽ അവരത് വിളവെടുക്കാണ്ട് കുറച്ച് കാലം കൂടെ വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കും ആ പൈസ കൂടുന്നതനുസരിച്ച് അവരത് വിക്കാൻ തുടങ്ങും അങ്ങിനെയൊക്കെയാണിപ്പം ഇപ്പോഴത്തെ കൃഷിക്കാരൊക്കെ ചെയ്യുന്നത് അതുപോലത്തന്നെ സർക്കാര് കൃഷിക്കായിട്ട് ഒരുപാട് ലോണൊക്കെ കൊടുക്കുന്നുണ്ടിപ്പം കൃഷി ചെയ്യുകയാണെങ്കിൽ പൈസയില്ലാത്ത ഒരുപാട് ആൾ ആൾക്കാരുണ്ടാകും അപ്പം അവർക്കുവേണ്ടി സർക്കാർ എന്തെങ്കിലൊക്കെ ചെയ്യണം എന്നുള്ളൊരു രീതിയില് അപ്പം സർക്കാർക്ക് എന്തേലുമൊക്കെയൊരു പിന്തുണ ആൾക്കാർക്ക് കൊടുക്കണം അവർക്ക് സ്വയംതൊഴിൽ ചെയ്യാനാഗ്രഹമുണ്ടാവും അപ്പം അതുകൊണ്ട് സർക്കാരിപ്പം കൃഷിക്കാർക്കൊക്കെ വേണ്ടി ഒരുപാട് ലോണൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ടതന്നെ കൃഷിക്കാർക്കതൊരു വലിയ പിന്തുണ പിന്തുണയാവുന്നുണ്ട്